യാത്രകൾ എന്നും എനിക്കൊരു ഓർമ്മയാണ് എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അമ്മമ്മയുടെ കൂടെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അമ്മമ്മയുടെ ഒപ്പം മാത്രമല്ല അച്ഛൻ്റെയൊപ്പം ആണെങ്കിൽ അമ്മയുടെ ഒപ്പം ആണെങ്കിൽ അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത് അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നല്ല ഒരു ഓർമ്മയാണ് ഒരു യാത്ര ചെയ്ത ഒരു ഓർമ്മയാണ് എൻ്റെ അമ്മമ്മയുടെ കൂടെ പോയത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോളും നിൽക്കുന്നൊരു ഓർമ്മ അത് ഞാൻ തൊടുപുഴ എന്ന സ്ഥലത്തേക്ക് ഒരു അമ്പലത്തിൽ ഉത്സവത്തിനാണ് ഞാൻ പോയത് അത് എല്ലാ കൊല്ലവും അമ്മമ്മ അമ്മമ്മയ്ക്കിങ്ങനെ ഉത്സവം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇത് അതുകൊണ്ട് തന്നെ അമ്മമ്മ എല്ലാ ഉത്സവങ്ങൾക്കും അതുകൊണ്ട് മാത്രം അല്ല അമ്മമ്മയുടെ നാട് തൊടുപുഴയാണ് അപ്പം അമ്മമ്മ ആ അമ്പലത്തിലെ ഉത്സവത്തിന് ഞങ്ങളെ കൊണ്ടുപോവാറുണ്ട് അന്ന് അമ്മമ്മയ്ക്ക് പ്രായം കുറവായിരുന്നു യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായത്തിലായിരുന്നു അപ്പം അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി എന്നെ ഒരു തൊടുപുഴ കാഞ്ഞിരമറ്റം അമ്പലത്തിലെ ഉത്സവത്തിന് പോയതാണ് എൻ്റെ മനസ്സിൽ ഇന്നും അന്നും എന്നും ഓർക്കാൻ മറക്കാൻ പറ്റാത്ത ഒരു ഇത് അതിനായി ഞങ്ങൾ ഞങ്ങളുടെ വീട് ഇടുക്കിയിൽ അമ്മവീട് ഇടുക്കിയിലാണ് എറണാകുളത്ത് നിന്നും അമ്മയുടെ വീട്ടിലോട്ട് ചെല്ലുകയും അവിടുന്ന് ഞങ്ങൾ കൂട്ടുകാർ കൂട്ടുകാരും സഹോദരങ്ങളും എല്ലാമൊത്ത് അവധിക്കാലം ആഘോഷിക്കാൻ ചെല്ലുന്ന സമയത്ത് ആണീ അമ്പൽത്തിൽ ഉത്സവം ആ വീട്ടിൽനിന്നും ഞാൻ അമ്മമ്മയുടെ കൂടെ ഞാനും എൻ്റെ സഹോദരങ്ങളും അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളും അച്ഛൻ്റെ അനിയൻ്റെ മക്കളും ഒക്കെക്കൂടെ ഞങ്ങൾ കാഞ്ഞിരമറ്റം അമ്പലം ത്തിൽ പോയി പോവുന്ന വഴിക്ക് ഞങ്ങൾ ചെ പോവുന്ന വഴിക്ക് ഇടുക്കി ഡാമിൽ ഇറങ്ങി അവിടെ നമ്മ ഇടുക്കി ഡാം സന്ദർശിക്കുകയും അവിടുത്തെ മലയോരമനോഹൾ ആസ്വദിക്കുകയും ചെയ്തു നമുക്ക് സ്വന്തമായി വാഹനം ഉള്ളതിനാൽ നമുക്ക് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയം പന്ത്രണ്ട് മണിയായതുകൊണ്ട് നമുക്ക് ആ കറക്ട് സമയത്ത് എത്താനായിട്ട് സാധിച്ചു സാധിക്കുന്നതായിരുന്നു ഒരുപാട് ദൈർഘ്യമേറിയ യാത്രയാണ് തൊടുപുഴയിൽ നിന്നും അത് ഇടുക്കിയിൽ നിന്നും തൊടുപുഴയിലേക്ക് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇടുക്കി ഡാമിൽ ഇറങ്ങി കണ്ടതും കാഴ്ചകൾ കണ്ടതും അതുവഴി പോവുകയും പിന്നീട് മുന്നോട്ട് യാത്ര തുടർന്ന് കോ കൊണ്ടിരുന്നപ്പോൾ ഓരോ കളി സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളെ ഇറക്കി ആഘോഷിപ്പിച്ചതും ഞങ്ങളെ സന്തോഷിപ്പിച്ചതും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്നത് അമ്പലത്തിൽ ഒരു നാ അഞ്ച് മണി ആറര ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ചെല്ലുകയും ആറര കഴിഞ്ഞ് ആറര ആയപ്പോൾ ചെന്നാലും അഞ്ചര ആയപ്പം ചെന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയൊരു പുഴയുണ്ട് അമ്മമ്മയ്ക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അവിടെ കുളിക്കുകയും വസ്ത്രങ്ങൾ മാറുകയും എല്ലാം ചെയ്ത് ഞങ്ങൾ നീന്താനും വെള്ളമെന്ന് കണ്ടാൽ കുട്ടികൾക്ക് അന്നും ഇന്നും എന്നും ഒരു ആഗ്ലാ ആഹ്ളാദം ആണല്ലോ അന്ന് ഞങ്ങൾ അവിടെ ഇറങ്ങി നല്ല രീതിയിൽ വെള്ളത്തിൽ കളിക്കുകയും അത്ര രീതിയിലുള്ള ഒരു ഇത് ഓർമ്മപ്പെടുത്തുകയും ഒരു ഓരോ ഇതുകളും ഓരോ സ്ഥലവും ഇതും ഞങ്ങൾ കാണുകയും ചെയ്തു ആ സമയത്താണ് എൻ്റെ അനിയത്തിയെ വെളളത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒഴുക്കിൽ പെട്ട് പോയത് പെട്ട് പോയില്ല പെട്ടെന്ന് ഞങ്ങൾ രക്ഷപെടുത്തി എടുത്തു എന്നാലും എന്നിരുന്നാലും കൂടി പെട്ടെന്ന് അവൾ ഇങ്ങനെ ഒഴുകി പോയപ്പം ഞങ്ങൾ അങ്ങ് പേടിച്ചുപോയി എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് അവളെ എടുത്ത് ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു കാരണം കുട്ടിയാണെങ്കിലും പേടിച്ചുപോയി ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ അല്ല അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു ഏതാണ്ട് ഒരു എട്ടര എട്ട് ഒരു ക സമയം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ നിന്നുതന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു കഞ്ഞിയും പയറും മാങ്ങാ അച്ചാറും ഒക്കെയായിരുന്നു ഭക്ഷണം ഇന്നും അതിൻ്റെ രുചി എൻ്റെ വായിലുണ്ട് അത്രയും നല്ല മനോഹരമായ ഭക്ഷണമായിരുന്നു എന്നും ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നീട് ഞാൻ പിന്നീട് ഞങ്ങൾ അവിടെ ഇരിക്കുകയും അമ്പലത്തിലെ ഓരോരോ പരിപാടികൾ കാണുകയും ബാല അങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ കാണുകയും ഓരോരോ പരിപാടികൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തത് മൂലം ഞങ്ങൾക്ക് ഒരുപാട് അറിവുകളും നേട്ടങ്ങളും ഒരുപാട് ഓർമ്മകളും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കൈവരുത്താൻ സാധിച്ചു ബാലയൊക്കെ ആദ്യമായിട്ടാണ് അന്ന് അന്നത്തെ കാലത്ത് ഞാൻ കണ്ടത് കഥകളി ബാല ഓരോ ഒരു ഒരുപാട് അരങ്ങുകളായിട്ട് അമ്പലത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കൗതുകം ആയിരുന്നു ഇതൊക്കെ കാണാൻ പിന്നീട് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അമ്പലത്തിലെ കാവടിയാണ് അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് ഒരു ആഘോഷം എന്ന് പറയുന്നത് കാവടിയൊക്കെ കണ്ട് ഒരുപാട് കാവടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരുപാട് വലിയ ഒരു കാവടി ആയിരുന്നു കവടികളായിരുന്നു ഒരുപാട് നല്ല ഭംഗിയായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു ജീവിതത്തിലെന്നും എന്നും കാണാത്തെ ഒരു ഇതായിരുന്നു അതുപോലെ തന്നെ ആ ആ അതിലൂടെ ഓടിച്ചുനോക്കുമ്പോൾ എനിക്ക് ഇപ്പോളും ഓർമ്മ വരുന്നത് കിളിക കിളികളുടെ ഷെയിപ്പിലുള്ള രൂപാകൃതിയിലുള്ള ബലൂണുകളും പലഹാരങ്ങളും പല പല രീതികളിലുള്ള പലഹാരങ്ങളും എല്ലാമാണ് എൻ്റെ മനസ്സിൽക്കൂടെ ഓടിവരുന്നത് അമ്മമ്മ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചുതരും അമ്മമ്മ ഞങ്ങൾക്കായിട്ട് വേണ്ടി പൈസ മാറ്റിവയ്ക്കാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മേടിച്ച് തരികയും എല്ലാം ഞങ്ങളെ ഞങ്ങളെ ഓരോന്ന് കാണിക്കാനായിട്ട് അമ്മമ്മയ്ക്ക് ഓരോന്ന് കാണുന്നതിനേക്കാളും ഞങ്ങളെ കാണിച്ചുതരാം എന്നതിലായിരുന്നു അമ്മമ്മയുടെ കൗതുകം അതുപോലെ തന്നെ അമ്മമ്മ ഒരുപാട് സാധനങ്ങൾ എപ്പോഴും ഞങ്ങൾ എന്തിന് വാശി പിടിച്ചാലും അമ്മമ്മ അത് മേടിച്ച് തരുമായിരുന്നു അത് ഇപ്പോഴും ഓർക്കുന്നു പിന്നീട് ഉണ്ടായത് വൈകുന്നേരം രാത്രിയായപ്പോഴും ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചു എല്ലാം കണ്ടും കേട്ടും ഞങ്ങൾ ക്ഷീണിച്ചു ഞങ്ങൾ പിന്നീട് അമ്മയുടെ വീടായ അമ്മയുടെ തറവാടായ കോതകൊത്തിയിലേക്ക് മടങ്ങുവാണ് ചെയ്തത് അവിടെ ചെന്ന് അവിടെ വന്ന് അവിടെ ഒരു അവധിക്കാ അവിടെ ഒരു പുഴയുണ്ട് തൊട്ടടുത്ത പുഴ ആ പുഴയിൽ ഇറങ്ങി കുളിക്കുകയും രാവിലെ പിറ്റേന്ന് ഒരു ദിവസം രാവിലെ അവിടെ ഇറങ്ങി കുളിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അവിടുത്തെ അവിടെ കുട്ടി കുഞ്ഞിക്കുട്ടികൾ ഞങ്ങൾക്ക് കൂട്ടുകാർ ആവുകയും പുതിയ കൂട്ടുകാരെ കണ്ടെത്താൻ സാധിക്കുകയും ബന്ധുക്കളെ കാണാൻ സാധിക്കുകയും അനിയന്മാരും അനിയത്തിമാരുമായിട്ടൊരു നല്ലൊരു ബന്ധം പുലർത്താൻ അന്ന് സാധിച്ചു പിന്നീട് അങ്ങനെയൊരു കുട്ടിക്കാലം എനിക്ക് കുട്ടികാലയാത്ര എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാം പല വഴി പോയി വീട് മാറി പോവുകയും ഞങ്ങൾ അവർ ഞങ്ങളുടെ ജീവിതവുമായി ഞങ്ങൾ തിരക്കിലാവുകയും ചെയ്തു ഇനിയും എനിക്കൊരു ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ആ ഒരു സ്ഥലത്തോട്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഇതിലോട്ട് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ ചെന്നുകയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ലൈഫിലെ എനിക്ക് ഇതാണ് എൻ്റെ ലൈഫിലെ എനിക്ക് പങ്കിടാൻ സ്ഥ പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഓർമ്മ